എ വി എം ഏജൻസി അല്ലേ ഞങ്ങൾക്ക് ഒരു ട്രിപ്പ് പോകണമായിരുന്നേ ഞങ്ങൾ ഫാമിലി ആയിട്ട് ഞങ്ങൾക്ക് വേളാങ്കണ്ണിക്ക് പോവണം വേളാങ്കണ്ണിക്ക് പോവുന്നതിന് എത്ര രൂപയാണ് ചാർജ് ആകുന്നതേ അത്രയും ആകുമോ ആ അതപ്പം എങ്ങനെയാണ് ബസ്സിലാണോ ബസ്സിനാവുമ്പോഴത്തേക്ക് നമ്മൾ ഇരുന്ന് പോകേണ്ട ഇരുന്ന് നമ്മളിപ്പം നമുക്ക് കിടന്ന് പോകത്തക്ക രീതിയിലുള്ള ബസ് ഇതുണ്ടല്ലോ അതിനൊക്കെ എത്ര രൂപയാകും ചാർജേ ആ ഞങ്ങൾക്ക് ആ അത്രയും ആകുമോ ഓ അത്രയും ഇല്ലല്ലോ അതൊക്കെ ഞങ്ങൾ പിന്നെ ഇത്രയും പേർ വരുന്നതല്ല ഞങ്ങളിപ്പം ഞങ്ങളുടെ വീട്ടിൽ നിന്നാണേ ഞങ്ങളൊരു അഞ്ചെട്ട് പത്ത് പേരോളം കാണും അപ്പം ഞങ്ങൾക്ക് ഇത്തിരി കുറച്ചൊക്കെ തരരുതോ ആ കുറച്ച് തരാമെങ്കിൽ ഞങ്ങൾ ഒരു പത്ത് പേർ വരും